പിന്നെ അദ്യ കാലങ്ങളിലൊക്കെ ഞാന് സ്കുളു കാലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചിത്ര രചനെൻ്റെ മാത്രം ഒരു ക്ലാസ്സുണ്ടാവും അത് ആഴ്ചേലൊരിക്കെ ഒക്കെ ഉണ്ടാവുകയുള്ളു ഒരു പിരീഡ് മാത്രേ ഉണ്ടാവുകയുള്ളു അപ്പം ആ ടൈമിലൊക്കെ ഞാന് നല്ലോണം അതായത് മാക്സിമം പഠി പഠിച്ച് പഠിപ്പിച്ച് തരുന്നതൊക്കെ പഠിക്കാനോക്കെ നല്ലവണം ശ്രമിച്ചിട്ടുണ്ട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കോളേജൊന്നും എത്തിയപ്പോൾ നമുക്കങ്ങനെ ഒരു പിന്നെ ഡ്രോയിംഗ് ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നു ഉണ്ടായിരുന്നില്ല സ്കൂളിലായിരിന്നു ഉണ്ടായിരുന്നത് സ്കൂളിലങ്ങനെ എനിക്ക് തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം വരക്കുവായിരുന്നു അപ്പോൾ ടീച്ചർ അത്യാവശ്യം നല്ലോണം എന്നെ ശ്രദ്ധിക്കും എനിക്ക് കൂടുതൽ കൂടുതലായിട്ട് പറഞ്ഞുതരും കാരണം എല്ലാവർക്കും ഇൻ്ററെസ്റ്റ് ഉള്ളൊരു ഇതായിരിക്കില്ലല്ലോ നമുക്ക് ഇങ്ങനത്തെ എക്സ്ട്രാ കറിക്കുലറാക്ടിവിറ്റിസ് ഒക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കില് ചിലർക്ക് താൽപര്യം ഉണ്ടാവുന്നതായിരിക്കും ചിലർക്ക് തല്പര്യം ഉണ്ടാവത്തതായിരിക്കും എനിക്കെന്ന് വച്ചിട്ടിണ്ടേല് ഇതൊക്കെ ഭയങ്കര താൽപര്യം ആണ് കാരണം പിന്നെ അല്ലാണ്ട് ഞാന് വീട്ടിൽ നിന്ന് ഡ്രോയിംഗ് ക്ലാസിനൊന്നും പുറത്തൊന്നും അങ്ങനെ പോവാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ടീച്ചറു നല്ലോണം അത്യാവശ്യം നല്ലോണം പറഞ്ഞ് തരുവായിരിന്നു അപ്പം ഞാനിങ്ങനെ അതൊക്കെ അലോചിച്ച് ഇങ്ങനെ വര വരക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ടീച്ചറുടെ ഒരു പ്രചോദനം എന്നു പറഞ്ഞാൽ ഭയങ്കരം തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാന് കൂടുതൽ നന്നായിട്ട് വരക്കാനൊക്കെ അ അന്നത്ത കാലത്ത് ഞാൻ കൂടുതലയിട്ടും നല്ലോണം വരക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു